കുഴൽ കിണറിലെ വെള്ളം എന്ന് പറയുന്നത് പാറകൾക്കിടയിലൂടെ കിട്ടുന്ന ഒരു വെള്ളമാണ് അപ്പം നമുക്കത് അധികം ഉപയോഗിക്കാൻ പറ്റില്ല എന്താണെന്ന് വെച്ചാല് പാറപ്പൊടിയോ തിളച്ച് കഴിയുമ്പോൾ പാറപ്പൊടിയോ അങ്ങനെയൊക്കെ ഉണ്ടാകും നമ്മുടെ കിണറ്റിലെ വെള്ളത്തിനേകാട്ടിയും നമുക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല നമുക്ക് ആ വെള്ളത്തിൽ കുടിക്കുമ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ പ്രദേശത്ത് കുഴൽകിണറുകളില്ല കിണറാണുള്ളത് കിണറിൽ നിന്നാണ് ഒരു ഏഴു വീട്ടുകാരാണ് നമ്മള് വെള്ളം ഉപയോഗിക്കുന്നത് ആ കിണറ്റിൽ നിന്ന് പിന്നെ വേനൽക്കാലം ആകുമ്പോൾ ആ കിണറ്റില് ആവശ്യത്തിനുള്ള വെള്ളം മാത്രമെ ഉണ്ടാവുകയുള്ളു ഓരോ ഏഴ് വീട്ടുകാരെടുക്കുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് അങ്ങനെ കുടിക്കാനുള്ള വെള്ളം മാത്രമെ ഉണ്ടാവുകയുള്ളു ഭക്ഷണമുണ്ടാക്കാനൊക്കെ ഉള്ളത് പിന്നെ മഴക്കാലം വരുമ്പോൾ നമുക്കത് ഒരുപാടു വെള്ളം ആവശ്യങ്ങൾക്ക് എടുക്കാൻ പറ്റും പിന്നെ നമുക്ക് ബാക്കിയുള്ള ആവശ്യങ്ങൾക്കൊക്കെ നമ്മള് പഞ്ചായത്ത് വെള്ളമാണ് ആശ്രയിക്കുന്നത് അതാകുമ്പോൾ എന്താ പറയുക നമുക്ക് കിണറ്റിൽ നിന്ന് കുടിക്കാനും ഭക്ഷണത്തിനും ഉള്ള വെള്ളം മാത്രം കിട്ടിയാൽ മതി പിന്നീട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് കിണറ് വെള്ളം കുഴൽ കിണറിനെക്കാട്ടിലും കിണറ് വെള്ളമായിരിക്കും ഏറ്റവും നല്ലത് എന്താന്ന് വെച്ചാല് തിളച്ച് കഴിയുമ്പോൾ പാറപ്പൊടിയൊന്നും ഉണ്ടാകില്ല സൈഡിലൊന്നും